ഞാന് ഇൻ്റർനെറ്റ് നിന്നൊരു ഷർട്ടെടുത്തിരുന്നു അടിപൊളി ഷർട്ടാണ് നല്ല കോട്ടൻ്റെ ഷർട്ടായിരുന്നു അത് കളറൊന്നും പോകുന്നില്ല പിന്നെ ഇടക്കെടക്ക് ഇസ്തിരി ഇടേണ്ട ആവശ്യല്ല ചുളിവൊന്നും അധികം കാര്യായിട്ടില്ല ഞാനതൊരു പാർട്ടിക്കിട്ടിട്ട് പോയി അപ്പോൾ അവിടെള്ള ആൾക്കാരൊക്കെ ചോദിച്ചു ഷർട്ടെവിടെന്നാണ് എടുത്തതെന്ന് ഷർട്ടെവിടെന്നാണ് എടുത്തതെന്ന് ഞാൻ നെറ്റ് നിന്ന് എടുത്തതാ പറഞ്ഞു ഷർട്ടും അടിപൊളിയാണ് പ്രൈസും അധികല്ല വാല്യൂ ഫോർ മണിയായിരുന്നു ഷർട്ട് അത് ഇപ്പോൾ നാലഞ്ച് തവണയായി ഇടുന്നു അത് വല്യ കേടൊന്നുമില്ല കേടേ ഇല്ല അതിനു അടിപൊളി ഷർട്ടായിരുന്നു കുഴപ്പമൊന്നും പറയാനില്ല